ആ അതേലോ ആരായിരുന്നു വിളിക്കുന്നത് തൊടുപുഴേന്നാണല്ലേ ആ ആ നമുക്ക് ആ നമുക്ക് ടു വീലർകളെല്ലാമുണ്ട് ഏതാ വണ്ടി നമ്മുടെ ഒരു റോഡിന്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് അപ്പം ബുള്ളറ്റുണ്ട് മറ്റേ ബൈക്കുകളുണ്ട് സ്കൂട്ടിയുണ്ട് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അനുസരിച്ച് സ്കൂട്ടി മതി ആ സ്കൂട്ട്യാകുമ്പോൾ ന ആ അതേ ഓക്കേ ഓക്കെ അതിനു കൊ ആ അതിനു കുഴപ്പമില്ല നമുക്ക് ആ സ്കൂട്ട്യാണ് കുഴപ്പമില്ല ലഗേജൊക്കെ ഉണ്ടെങ്കിൽ സ്കൂട്ട്യാണ് പിന്നെ ലഗേജ് കൂട്ടുകാരനുണ്ടെങ്കിൽ അവൻ അത് എടുക്കാൻ തയ്യാറാണെങ്കിൽ ബൈക്കും കുഴപ്പമില്ല നമുക്ക് ഏതാണ് സൗകാര്യപ്രദമായിട്ട് ജസ്റ്റിന് താല്പര്യം അതാണെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം

അതിന്റെ റെൻറ് നമ്മൾ ഡെയ്ലി അതായത് മണിക്കൂറാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നതിന് അനുസരിച്ച് മണിക്കൂർ അനുസരിച്ചാണത് റേറ്റ് വരുന്നത് മണിക്കൂറിന് നമ്മൾ ഒരു അൻപത് രൂപ രൂപ റേറ്റാണ് അപ്പോൾ നമ്മൾ ഫുള്ള് അ പെട്രോളൊഴിച്ച് തരും അപ്പോൾ തിരിച്ച് തരുമ്പോൾ നിങ്ങൾ ഫുള്ള് പെട്രോളടിച്ച് തിരിച്ച് തരണം അങ്ങനെയാണൊരു കണ്ടീഷന് അപ്പോൾ നിങ്ങൾ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു അപ്പോൾ പത്ത് മണിക്കൂർ ഉപയോഗിച്ചാൽ അഞ്ഞൂറ് രൂപ അങ്ങനെയൊരു റേറ്റാണ് സ്കൂട്ടിക്കൊക്കെ വരുന്നത് ബൈക്കിനാണ് കുറച്ചൂടെ മാറ്റൊണ്ട് അപ്പം നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ഏതാണെന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് ഇപ്പോൾ ഈ മേഖലയിൽ ഏതേത് റൂട്ടിക്കൂടെ പോകാനായിരിക്കും

ആ ഡോക്കുമെൻറ് നമുക്ക് നിങ്ങൾ എവിടുന്നാണ് നിങ്ങളുടെ പർപ്പസ്സെന്താണെന്ന് ഒക്കെയുള്ള ഒരു ഇതുണ്ടോ നിങ്ങൾ എന്തു കാര്യത്തിനാണ് വന്നതെന്ന് ഒക്കെയുള്ളൊരു ഡോക്കുമെൻറ്സ് നമുക്ക് തരണ്ടേതാണ് കാരണം ഇത് നമ്മൾ തന്ന് വിടുമ്പോൾ എന്തു കാര്യത്തിന് നിങ്ങൾക്ക് തന്നൂ എന്നുള്ളത് വേണമല്ലോ അപ്പം അതിന്റെ ആവശ്യത്തിനായിട്ട് അങ്ങനെയുള്ളൊരു കുറച്ച് പേപ്പറുകൾ അത് നമുക്ക് ഇവിടെ ഫോമുണ്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് തന്നാൽ മതി ഫില്ല് ചെയ്ത് ഒപ്പിട്ട് തന്നാൽ മതി നമുക്ക് ഇവിടെ അതിനുള്ള ഫോമുണ്ട് അപ്പം അത് നിങ്ങൾ ഫില്ല് ചെയ്ത് ഒപ്പിട്ട് തന്നാൽ മതിയാകും അപ്പം ആ നിങ്ങൾക്ക് വന്ന് കണ്ട് വണ്ടി സൂട്ടബ്ലാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് വണ്ടിയുണ്ട് ധാരളമുണ്ട് ഓക്കേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളത് ഇതിനാക്സിഡെൻടോ വണ്ടിക്ക് ഡാമേജ്കളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടായാലത് നിങ്ങളാണ് പൂർണ്ണമായിട്ടും ചെയ്ത് തരണം ആ അതിന്റെ അതിന്റെ ഇൻഷൂറെൻസ് വരുന്ന കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ആയിരിക്കും ഉത്തരവാദിത്തം അ അ ആ നിങ്ങളുടെ കയ്യിൽ വണ്ടി കിട്ടിയതിനു ശേഷം വരുന്ന എന്ത് ആക്സിഡെൻറ്റ് കാര്യങ്ങൾക്കും ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഉണ്ടാകണം അതിനുള്ള പേപ്പറുകളും കാര്യങ്ങൾ എല്ലാം നമ്മൾ ഇവിടെ ഒപ്പിടീച്ചാണ് തരൂള്ളൂ അപ്പം അങ്ങനെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ട് പാർത്തോളാണ് പാറത്തോട്ട് വന്നാൽ മതി പാർത്തോളെനിക്ക് ഓഫീസൊണ്ട് ആ പിന്നെ നിങ്ങളുടെ ആ ഓക്കെ ഓക്കേ നിങ്ങളുടെ ഐ ഡിടെ രണ്ടും ഇപ്പം നിങ്ങൾ രണ്ട് പേരാണ് രണ്ട് പേരുടെയും ഐ ഡിടെ ഓരോ കോപ്പി തരണം ആ തരും വേണം അപ്പോൾ നമുക്ക് വേറെ തരുന്നതിന് വേറെ ഫോർമാലിറ്റീസൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടി വൃത്തിയായി സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ വണ്ടി പോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ അപ്പം നമുക്ക് വേറെ വണ്ടി തരുന്നതിന് പ്രശ്നമില്ല സുധീഷിനൊപ്പം വേണേലും വരാവുന്നതാണ് ഓഫീസിൽ ഓക്കേ ആ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു ഓക്കേ താങ്ക് യു